ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഞാൻ പറയുക ആണെങ്കിൽ വിദ്യാഭ്യാസത്തിനെ മുൻപോട്ട് കൊണ്ടുവരണമെങ്കിൽ കുടുതലായിട്ട് എന്താ പറയാ സ്കൂളുകൾക്ക് എന്താ പറയാ നല്ല നല്ല ക്ലാസ്സ് മുറികളൊക്കെ കൊണ്ടു വരുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വിദ്യാഭ്യാസ രീതികളൊക്കെ മുന്നോട്ട് വരും കാരണം ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ക്കൂളിൽ ഒക്കെന്ന് പറയുമ്പോൾ സാധാരണ കണ്ടുവരുന്നത് എന്താ പറയാ പഴയ ബെഞ്ച് പഴയ ഡെസ്ക് കൂടുതൽ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ അതൊക്കെ മെച്ചപ്പെടുത്തുവാണെങ്കിൽ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂൾ ഒരുവിധം എന്താ പറയാ മെച്ചപ്പെടാനുള്ള സാധ്യത ഉണ്ട് കാരണം അവർക്കു കൂടുതൽ സൗകര്യങ്ങൾ വരുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് അങ്ങോട്ട് വരാനുള്ള താൽപ്പര്യം കൂടും പിന്നെ ഇന്നെന്ന് പറയുമ്പോൾ നല്ല യൂണിഫോമും കാര്യങ്ങളും നല്ല ടീച്ചര് അധ്യാപകരൊക്കെ നല്ല അധ്യാപകരൊക്കെ വരുവാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് പൊതുവെ എന്താ പറയാ സ്കൂളുകളിലേക്ക് പോകാനുള്ള ഒരു ഇത് കൂടും കാരണം അവിടുത്തെ എന്താ പറയാ അധ്യാപകരുടെ മികവ് കൊണ്ടന്നെ സ്ക്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് ലഭിക്യോക്കെ ആണെങ്കിൽ ആ അദ്ധ്യാപകർ കുടുതലായിട്ടും തിരഞ്ഞെടുക്കുന്നത് പിന്നെ ഇത്തരത്തിലുള്ള ഫീൽഡ് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള സ്കൂളുകളായിരിക്കും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല നല്ല സ്കൂളുകളിലേക്ക് പോകുമ്പോൾ എന്താപറയാ കുട്ടികളെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടു പോകാനാണ് എല്ലാ അദ്ധ്യപകരും ശ്രമിക്കുക അപ്പോൾ സ്കൂളുകളിൽ നല്ല അദ്ധ്യാപകരൊക്കെ വന്ന് അത്യാവശ്യം നല്ല രീതിക്ക് പഠിപ്പിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ധ്യാപകരൊക്കെ അദ്ധ്യാപകർ നല്ലവരാണെങ്കിൽ എന്താ പറയാ ആ സ്കൂളുകളിലേക്കാണ് കുടുതലും എന്താ പറയാ മാതാപിതാക്കൾ കുട്ടികളെ വിടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം